ഞാൻ കോഴിക്കോട് നിന്നാണ് കേട്ടോ വിളിക്കുന്നത് കോഴിക്കോട് തന്നെ അടുത്താണ് കോഴിക്കോട് തന്നെ നമ്മുടെ സിറ്റിയിൽ തന്നെയാണ് ഫ്ലാറ്റ് അപ്പം എനിക്ക് ഞങ്ങൾ ഒരു മൂന്ന് ദിവസത്തെ പിക്ക് അതായത് ഒരു പിക്നിക് ആണ് പ്ലാൻ ചെയ്യുന്നത് അപ്പം ഞങ്ങൾക്ക് പിക്ക് അപ്പും ഡ്രോപ്പും വേണം നമ്മൾ ക്യാബ് ബുക്ക് ചെയ്തിട്ട് പോകാം എന്നാണ് വിചാരിക്കുന്നത് ഞങ്ങൾ ഒരു ഏഴുപേരുണ്ട് അപ്പം അതിന് അങ്ങനെയുള്ള ഒരു വണ്ടിയാണ് ഞങ്ങൾക്ക് വേണ്ടത് അങ്ങനത്തെ അത്രയും വലിയ അത്രയും ആൾക്കാർക്ക് പോകാൻ പറ്റിയ വണ്ടി ഇപ്പം നമ്മൾ പോകുന്നത് പിന്നെ തൃശ്ശൂർക്ക് പോകണം തൃശ്ശൂരിൽ നിന്ന് നേരെ കൊച്ചിക്ക് പിറ്റേ അതായത് മൂന്ന് ദിവസത്തെ ട്രിപ്പാണ് അപ്പം നിങ്ങൾ അത് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ അത് എങ്ങനെയാണ് എന്ന് നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾ മൂന്ന് ദിവസം കൊണ്ട് അല്ലെങ്കിൽ നാല് ദിവസം അത്രയും ദിവസമാണ് ഉദ്ദേശിക്കുന്നത് അതിൽ കൂടുതൽ ദിവസം ഒന്നും വേണ്ട അപ്പം ഞങ്ങൾ ഒരു പിക്നിക് പോലെയാണ് പ്ലാൻ ചെയ്യുന്നത് ഫ്രണ്ട്സിൻ്റെ കൂടെ അപ്പം ഏഴുപേരാണ് ഉള്ളത് അപ്പം ഞങ്ങൾ ഇവിടെ ഫ്ലാറ്റിൽ വെയിറ്റ് ചെയ്യുകയേ ഉള്ളൂ ഇവിടെ നമ്മൾ കോഴിക്കോട് തന്നെ അപ്പം നിങ്ങൾ അവിടെ വന്നാൽ മതി വിളിച്ചാൽ മതി അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ നമ്മൾ എവിടെ ഇവിടെത്തന്നെ ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യണം പിക്ക് അപ്പ് ചെയ്യുന്നത് എവിടെയാണോ അവിടെ തന്നെ നിങ്ങൾ ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യണമായിരുന്നു അതൊക്കെ പറയാൻ വേണ്ടിയാണ് വിളിച്ചത്